ആ ഹലോ പറയൂ ആ അതെയല്ലോ മാഡം പറയൂ ആ ആ ട്രിപ്പിൽ ആണ് ആ മാഡം ടൂ വീലർ ഏതാണ് സ്കൂട്ടി ആണോ അതോ ബൈക്ക്സ് ആണോ എന്താണ് മാഡം നോക്കുന്നത് ബൈക്ക് നമ്മൾക്ക് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ബുള്ളറ്റ് പിന്നെ ഡ്യൂക്ക് ആർ സി ലൈക്ക് അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ആ പിന്നെ റ്റുറ്റൊൻറ്റി പൾസർ പിന്നെ ഡൊമിനാർ അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് വൺ ഡേയ്ക്ക് ബുള്ളറ്റിനൊക്കെ ആണെങ്കിൽ ഒരു ടൂ തൗസൻ്റിന്റെ മേലെയൊക്കെ ആവും മാഡം പിന്നെ നിങ്ങൾക്ക് ഓഫ് റോഡ് ഒക്കെ പോവാൻ ആണെങ്കിൽ ഹിമാലയൻസ് അവൈലബിൾ ആണ് ഏതാണ് വേണ്ടത് എന്നുവച്ചാൽ അതിന്റേതായ ഇതിൽ ഞങ്ങൾ തരും മാഡം ഓരോ വണ്ടീൻ്റെ അത് അനുസരിച്ച് ആയിരിക്കും റെൻ്റിനു ക്യാഷ് കൂടുന്നത് ഹിമാലയൻ ഒക്കെ ആണെങ്കിൽ ത്രീ തൗസൻഡ് അടുത്തെത്തും ആ അതെ അതെ സ്കൂട്ടിക്ക് ഏറ്റവും കുറവാണ് മാഡം സ്കൂട്ടിക്ക് ആണ് ഇപ്പോൾ കുറച്ച് ഇത് ഉള്ളത് അതായത് ഒരു വൺ തൗസന്റ് എയിറ്റ് ഹൺഡ്രെഡിനൊക്കെ ഒരു ഡേയ്ക്ക് പിന്നെ നിങ്ങൾക്കൊരു ഫൈവ് ടൂ ടെൻ ഡേയ്സിനൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കൗണ്ട്സൊക്കെ ഉണ്ട് മാഡം ഒരു തൗസന്റ് റുപ്പീസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് തരും

പെട്രോൾ ഒരു ടൂ തൗസന്റ് റുപ്പീസിന് കമ്പനി അടിച്ച് തരും പിന്നെ നിങ്ങൾക്ക് ഒരു ഡേയ്ക്ക് ആണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ച് തരികയുള്ളൂ പിന്നെ കുറേ ഡേയ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു ടൂ തൗസന്റ് റുപ്പീസിനു ഇവിടെ കമ്പനി അടിച്ച് തരും ബാക്കി നിങ്ങൾ കന്നെടുത്ത് അടിക്കേണ്ടി വരും മാഡം നിങ്ങൾ റെഡി ആക്കേണ്ട ആവശ്യമില്ല മാഡം കമ്പനി എല്ലാം റെഡി ആക്കിത്തരും അതുപോലെ തന്നെ ആ ടൈമിൽ അതേ വണ്ടി വേറൊരാള് അവിടെനിന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരും മാഡം പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ആക്സിഡെൻ്റോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന ആണെങ്കിൽ നിങ്ങൾ തന്നെ റെഡി അക്കേണ്ടിവരും മാഡം അല്ലാണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വണ്ടീൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് കമ്പനി തന്നെ റെഡി ആക്കിത്തരും പെട്രോൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ആണ് നിങ്ങൾക്ക് വണ്ടി റെൻ്റിനു വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കമ്പനി അടിച്ച് തരും ബാക്കി നിങ്ങൾ അടിക്കണം പിന്നെ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സിനു നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ടൂ തൗസന്റ് റുപ്പീസിന് കമ്പനി അടിച്ച് തരും ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം മാഡം ഒരു ത്രീ തൗസന്റിന്റെ അടുത്ത് വരും

അതിന്റേതായ ഡിസ്കൌണ്ട്സ് ഉണ്ടാവും ആ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ വേണ്ടത് ഏതാണെന്നുവച്ചാൽ പറഞ്ഞാൽ മതി